മലമൂത്ര വിസർജ്ജനം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ തുറസ്സായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്ജനം ചെയ്താൽ അത് ദോഷകരമാണ് മലമൂത്ര വിസർജ്ജനം തുറസ്സായ സ്ഥലത്ത് ചെയ്താൽ കൊതുകുകൾ ഈച്ചകൾ വഴിയിലൂടെയും അസുഖങ്ങൾ പടരുന്നത് കാണാം മലമൂത്ര വിസർജ്ജനം പലപ്പോഴായി പൊതുവായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്ജനം ചെയ്യാൻപാടുള്ളതല്ല അത് പല രോഗങ്ങൾക്കും കാരണമാകും